തീർച്ചയായും മലയാള ഭാഷയുടെ ഉപയോഗത്തിൽ കാലക്രമേണ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉദാഹരണമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലും കൂടുതലും ആൾക്കാർ ഇന്ന് മലയാളം മീഡിയം സ്കൂളിൽ പഠിപ്പിക്കാറില്ല എല്ലാവരും തന്നെ ഇംഗ്ലീഷ് മീഡിയം ഭാഷയിലാണ് പഠിപ്പിക്കുന്നത് അതുമാത്രമല്ല നമ്മളിൽ പോലും ഓരോരുത്തർ മിക്കയാളുകളും ഇംഗ്ലീഷിൽ തന്നെ ജർമ്മൻ ഇറ്റലി അങ്ങനെ ഫ്രാൻസ് പല ഭാഷകളിലും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിച്ച് വിദേശത്തിലോട്ട് കയറ്റിവിടാൻ ശ്രമിക്കുകയാണ് മലയാള ഭാഷ കാലക്രമേണ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് പല സംസ്കാരങ്ങളുടെയും സ്വാധീനം മൂലം ഈ മലയാള ഭാഷയുടെ ഉപയോഗം കുറഞ്ഞ് വരുകയാണ് കുട്ടികളിൽ പോലും വീട്ടിൽ മലയാളം സംസാരിച്ചാൽ അത് പ്രശ്നം സ്കൂളുകളിൽ മലയാളം സംസാരിച്ചാൽ ഫൈൻ ഈടാക്കുക ഇംഗ്ലീഷിലേ നമ്മുടെ കുട്ടികൾ സംസാരിക്കാവുള്ളൂ എന്നൊരു കാഴ്ചപ്പാടിലോട്ട് എത്ത് എത്തുകയാണ് മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് എന്താണ് മലയാളത്തിൽ സംസാരിക്കുന്നവർക്ക് മാത്രമേ ഏറ്റവും കൂടുതൽ മറ്റുള്ള ഭാഷകളിൽ സംസാരിക്കാൻ പറ്റൂ ഇപ്പോൾ ഒരു തമിഴ്കാർക്ക് തമിഴ് പറയുന്ന ആളിന് മലയാള ഭാഷ എത്രയെന്ന് പറഞ്ഞാലും അത്ര കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല മലയാളം സംസാരിക്കുന്നവർക്ക് മാത്രമേ ഏത് ഭാഷ വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരാൾക്ക് മലയാളം അത്ര കറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല അപ്പം മലയാള ഭാഷയെന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയാണ് മലയാളികളെ സംബന്ധിച്ച് മാതൃഭാഷയാണ് പണ്ടുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല മലയാളത്തിലെ മലയാളത്തിലെ പല വാക്കുകളും നമുക്കും മനസ്സിലാവില്ല എന്നാലും പണ്ടുള്ളവർ കൂടുതലും മലയാളം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതിയ തലമുറകൾക്ക് ഏറ്റവും കുറവ് ആൾക്കാരാണ് മലയാളം മലയാളം അറിയാമെങ്കിലും അവർ ഇംഗ്ലീഷ് കലർന്നുള്ള മലയാളത്തിലേ സംസാരിക്കു അപൂർവ്വം അതായത് ഇപ്പോൾ സെലിബ്രറ്റികൾ പോലും മലയാളം അറിയാവുന്നവരാണെങ്കിൽ അവർ മലയാളം അറിയത്തില്ലാത്തത് പോലെ ഇടയ്ക്ക് അങ്ങോ ഇങ്ങോ ഒരോ ചെറിയ വാക്ക് പറയും കൂടുതലും ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും അതിനോടൊരു പ്രത്യേക താല്പര്യം കാണിക്കുകയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്ന ഭാഷ മലയാളമാണെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് മലയാളമാണ് മലയാളം നന്നായിട്ട് സംസാരിച്ചാലേ നമുക്ക് ഇംഗ്ലീഷിനെക്കാളും ഉപരി മലയാളം സംസാരിക്കുന്നതാണ് നമുക്ക് ഇപ്പഴും ഏറ്റവും നല്ലത് പിന്നെ ഈ വസ്ത്രധാരണ പോലും പലരും മലയാളത്തിൽ മലയാളികൾ പൊതുവേ ചുരിദാർ സാരി അങ്ങനെ മുണ്ട് ഷർട്ട് അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇംഗ്ലീഷിൽ വരുമ്പോൾ ഡ്രസ്സിൻ്റെ ഓരോ വ്യത്യസ്തമായ ഡ്രസ്സ് ഓരോ മോഡേൺ ഡ്രസ്സ് അത് കൂടുതലും ഇംഗ്ലീഷിൻ്റെ ഇത് വരുമ്പോൾ ആൾക്കാർ അങ്ങനെ ധരിക്കുന്നത് ഇപ്പം നമ്മുടെ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ന്യൂ ജനറേഷൻ ആൾക്കാരാണ് അതായത് ആ അങ്ങനെയുള്ള വസ്ത്രങ്ങളെ ധരിക്കത്തുള്ളൂ അതിപ്പോൾ എന്താണ് ജീൻസ് ഷർട്ട് അങ്ങനെ വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിക്കാൻ അവർ ആകർഷകരാകുകയാണ് അപ്പം മലയാളത്തിൽ മലയാളികളെന്ന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകുന്നത് സാരി സാരി അല്ലെങ്കിൽ മുണ്ടും ഷർട്ട് അങ്ങനെ കുഞ്ഞു പിള്ളേരൊക്കെ പാട്ടുപാവാട അതൊക്കെയിപ്പോൾ അതൊക്കെയിപ്പോൾ അന്യാധീന പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോ ബ ഭക്ഷ്യ വസ്തുക്കളാണെങ്കിൽ പോലും നമ്മൾ അന്യ സംസ്ഥാനത്തെ ആണ് ആശ്രയിക്കുന്നത് അത് മലയാളികൾ എന്ന് പറയുമ്പോൾ തന്നെ കർഷകർ അങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാം കാലക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോൾ വല്ലാണ്ട് നമ്മളെ മലയാള ഭാഷയെ ഭാഷയുടെ ഉപയോഗം കാലക്രമേണ ഭയ വലിയ മാറ്റങ്ങൾ ഉണ്ടായികൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മറ്റ് ഭാഷകളുടെ സംസ്കാരത്തിന് സ്വാധീനം മൂലം ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്